ഹലോ എൻ്റെ പേര് ശരത്താണ് ഞാൻ ഓർഡർ ചെയ്തിരുന്ന ഇയർ ഫോൺ ഇന്നലെ എനിക്ക് എത്തിയിട്ടുണ്ടായിരുന്നു ഞാൻ യൂസ് ചെയ്തു നോക്കി വളരെ നല്ല പ്രോഡക്റ്റ് ആണ് നമുക്ക് മ്യൂസിക്കെല്ലാം വളരെ നല്ല വൃത്തിയായിട്ടു തന്നെ നമുക്കത് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട് അതുപോലെത്തന്നെ കംഫർട്ടാണ് നമുക്ക് ഇയറിന് വല്ലിയ ഇറിറ്റേഷനും പ്രശ്നമൊന്നും തോന്നുന്നില്ല നല്ല കംഫർട്ടായിട്ട് ഇരിക്കുന്നുണ്ട് അതുപോലെത്തന്നെ ഭയങ്കര ഡ്യൂറബിൾ ആണെന്ന് തോന്നുന്ന കണ്ടിട്ട് എനിക്ക് സൗണ്ട്സൊക്കെ അല്ല ബാസ് ആയാലും എല്ലാം കറക്റ്റ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്